വസ്തു നിഷ്ഠമായി പറഞ്ഞാൽ കലാപകരമായ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ആനുകാലികമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചുവരുന്നുണ്ട് പ്രധാനമായിട്ട് പറഞ്ഞാൽ ഇന്ന് ഒരൂ വർഗ്ഗീയമായിട്ടും ഉള്ള ഒരു സംഭവം എവിടെയെങ്കിലും തകർക്കപ്പെട്ടാൽ അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം ഒന്നും ആരും പത്രങ്ങളിൽ പ്രതികരിക്കാറില്ല അത് പ്രതികരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ദേവാലയം തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇന്ന ആൾ തകർത്തു എന്നുള്ള ഒരു വർത്ത അങ്ങ് ആദ്യമേ പബ്ലിഷ് ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇത് വസ്തുനിഷ്ഠ്പരമായി അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തിയതിന് ശേഷം ഒരു പത്രങ്ങളും അങ്ങനെ വാർത്ത കൊടുക്കാറില്ല മറിച്ച് അത് ജനത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു എഴുതുന്ന അല്ലെങ്കിൽ ആ ഒരു കാഴ്ച്ചപ്പാടിലേക്ക് മനുഷ്യനെ മാറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ കടന്ന് പോകുന്നതായിട്ടൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്ന സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അറിയാം ഏറ്റവും കൂടുൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് മണിപ്പൂർ സംഭവം മണിപ്പൂർ സംഭവങ്ങൾ സംബന്ധിച്ച് യാഥാർഥ്യം മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടു വരുന്നതില് ഒരു പരിധി വരെയൊക്കെ മാധ്യമങ്ങൾക്ക് ഇടപെടാനായിട്ട് സാധിച്ചിട്ടുള്ളു അതിന് അപ്പുറത്ത് ഒത്തിരി കാര്യങ്ങൾ ജനങ്ങളോട് തുറന്ന് പറയാനൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കൊണ്ട് വരാത്ത ഒരു അവസ്ഥയാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് പിന്നെ എന്താണ് പറയുന്നത് അവരെ ഒരു പ്രത്യേക വിഭാഗത്തിനോട് എതിര് നിൽക്കുന്ന രീതിയിൽ ചർച്ചചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ എഴുതുന്നതുമായ പ്രസ്താവനകളൊക്കെ ഒരുപാട് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഒരു സമുദായത്തിപ്പെട്ട ഒരു സംഭവം നടക്കുമ്പോൾ അത് മറ്റൊരു സമുദായത്തിന് എതിരാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടാതെ അത് അതിൻ്റേതായ രീതിയിൽ മറ്റുള്ളവർക്കു നന്മയാകുന്ന രീതിയിലൊക്കെ ഈ പത്രങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് എല്ലാം എടുക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇവിടെയൊക്കെ വീണ്ടും സ്പർദ്ധ ഉളവാക്കുന്ന രീതിയിലുള്ള കാഴ്ച്ചപ്പാടുകളും സംസാരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ അതൊരു ചേരിതിരിവിന് കാരണമായി തീരാറുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം പിടിച്ചുകൊണ്ട് മണിപ്പൂരിൽ നടന്ന ഒരു സംഭവത്തിന് സ്റ്റേറ്റുകൾ വിട്ട് മറ്റു സ്റ്റേറ്റുകളിലേക്കും അതിൻ്റെതായ ഒരു സ്പർദ്ധ പൂർണായിട്ട് കാണുവാനായിട്ട് ഇടയാക്കപ്പെടുന്നുണ്ട് ഈ ഈ വക സാഹചര്യങ്ങളൊക്കെ മനുഷ്യരുടെ മുമ്പിൽ വലുതാക്കി കാണിക്കാതെ അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങളും അതിനെ സമാധാനപരമായിട്ട് എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടത് ആണ് അതിൻ്റേതായ അത്യാവശ്യങ്ങൾ പക്ഷെ ഇതൊക്കെ ടി വി മാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും ചർച്ചകൾക്ക് വിളിക്കപ്പെടുന്നവരിലൂടെ ആ ഒരു ചേരിതിരിവെന്ന മനോഭാവത്തോടുകൂടി സംസാരിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു സംസാരങ്ങളൊന്നും ഒരു സമാധാനത്തിലേക്ക് മറ്റുള്ള സമൂഹങ്ങളെ നയിക്കാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെയൊക്ക പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് വരേണ്ട സമാധാനത്തിൻ്റെ വക്താക്കളായിട്ട് മാറുവാനായിട്ട് മാധ്യമങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആണ് ഇതിനകത്ത് പറയാനുള്ളത് പ്രലോഭനപരമായ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഈ രീതിയിൽ ചർച്ചകളിലൂടെയൊക്ക വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇപ്പോൾ വരുന്ന എന്താണ് പറയുന്നത് യുവാക്കൾക്ക് ഇടയിൽ പോലും ആ ഒരു സ്പർധ അങ്ങേയറ്റം വന്നൊരു കൊച്ചു കുഞ്ഞിൻ്റെ ഇടയിൽ പോലും ഒരു സ്പർധ കടന്നുവ രുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്